പാലക്കാട് ജില്ലയിൽ ഒരുപാട് പൊതുവായിട്ടുള്ള സാമൂഹിക അല്ലെങ്കിൽ സാംസ്കാരിക രീതികൾ ഒരുപാട് ആചാരങ്ങൾ നിലനിൽക്കുന്ന ഒരു ഗ്രാമമാണ് പാലക്കാട് കൂടുതലും തമിഴ്നാടുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിലുള്ള പല ആചാരങ്ങളും പാലക്കാട് അനുഷ്ഠിക്കാറുണ്ട് അത് ഓരോ സ്ഥലങ്ങളിലും ഓരോ രീതിയിലാണ് ഈയിടെ നമ്മൾ പത്രങ്ങളിലൊക്കെ കണ്ട ഒരു ഒരു ആചാരത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത് പാലക്കാട് ജില്ലയിൽ നവ വധു നവ നവ വധു വരൻ അവർ വീട്ടിലോട്ടു വരുന്ന സമയത്ത് കല്ല്യാണം കഴിഞ്ഞ അന്ന് വീട്ടിലോട്ട് വരുന്ന സമയത്ത് രണ്ട് പേരുടെയും തല കൂട്ടി കൂട്ടി മുട്ടിക്കുക എന്നു പറയണത് ഒരു ആചാരമായിട്ട് പാലക്കാട് മാറി എന്നു തന്നെ പറയാം കാരണം അങ്ങനെ കൂട്ടി മുട്ടിച്ച ആ ആൾ പറയുന്നത് അദ്ദേഹത്തിൻ്റെ സ്ഥലത്ത് ഇങ്ങനെയൊക്കെ ചെയ്യും എന്നാണെന്നാണ് പറയുന്നത് പക്ഷെ ആ ഒരു ആചാരം കാരണം തീർച്ഛയായും അവർക്ക് രണ്ടാൾക്കും ആ രണ്ട് വ്യക്തികൾക്കും ഒരുപാട് പെട്ടെന്നൊരു പെട്ടെന്നുണ്ടായൊരു ഒരു വേദന കാരണം അവർക്കൊരുപാട് വേദന സഹിക്കേണ്ടി വന്നുയെന്ന് പറയാം അങ്ങനെ പാലക്കാട് ആരും കണ്ടും കേട്ടതും കേട്ടിട്ടുമില്ലാത്ത പല ആചാരങ്ങളും അനുഷ്ഠാനുങ്ങളും നിലനിൽക്കുന്നൊരു ജില്ലയാണ് പാലക്കാട് പിന്നീട് ഈ ആചാരങ്ങളെല്ലാം സമൂഹത്തിൻ്റെ ഐക്യത്തിനും അതുപോലെതന്നെ എല്ലാത്തിനും സംഭാവന ചെയ്യുന്നു മൃതങ്കത്തിലെ മൃതങ്കത്തിലെ പ്രധാന വ്യക്തിയാണ് നമുക്ക് അറിയാം മണി അയ്യർ ഓക്കേ മണി അയ്യർ കർണ്ണാടക സംഗീതത്തിലെ സുപ്രധാന ഉപകരണമാണ് മൃതംഗം അതുപോലെതന്നെ മലയാള കവികളിൽ ഏറ്റവും പ്രശസ്തനായ കുഞ്ചൻ നമ്പ്യാർ അദ്ദേഹത്തിൻ്റെ ചെറുപ്പം പാലക്കാടാണ് അദ്ദേഹം ചിലവഴിച്ചിരുന്നത് പാലക്കാട് എന്നു പറയുമ്പോൾ ക്ഷേത്ര ഉത്സവങ്ങളുടെ ഒരു ഒരു സ്ഥലം കൂടിയാണ്